ഇപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് കൂടുതലായിട്ടും ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങൾ എന്നൊക്കേ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിവിടേ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെള്ളൂർക്കാവ് ഉത്സവമാണ് അപ്പം അതാണ് നമുക്ക് വയനാട്ടുകാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉത്സവം രണ്ടെണ്ണം ഉണ്ട് അതായത് ബത്തേരിയുണ്ട് മാരിയമ്മൻ മാനന്തവാടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെള്ളൂർക്കാവ് ഉത്സവമാണ് മെയിൻ ആയിട്ടുള്ളത് അത് നമുക്ക് ഈ മാർച്ച് ഇരുപത്തി എട്ടിനാണ് ലാസ്റ്റ് അതായത് മാർച്ച് പതിനാലിന് തുടങ്ങി മാർച്ച് ഇരുപത്തി എട്ടിനാണ് അവസാനിക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ വയനാട്ടിലെ ലാസ്റ്റ് ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ഉത്സവമാണ് അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ലാസ്റ്റ് ദിവസം ഓരോ ഇപ്പം പതിനാല് തൊട്ട് ഓരോ ദിവസങ്ങളിലും ഓരോ താലങ്ങളും കാര്യങ്ങളൊക്കേ അമ്പലത്തിലേക്ക് വരും അത് കൂടുതലായിട്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ കുറേ അതായത് താഴേക്കാവിൽ എന്തെങ്കിലുമൊക്കേ പരിപാടികൾ കാര്യങ്ങളൊക്കേ ഉണ്ടാകും പിന്നേ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവം കൂടാൻ വരുന്നത് എന്നുപറഞ്ഞാൽ അവിടെയുള്ള കാര്യങ്ങളും കാഴ്ചകളും ഒക്കേ കാണാൻ വേണ്ടിയിട്ട് പിന്നേ ഓരോ റൈഡും കാര്യങ്ങളൊക്കേ ഉണ്ട് അതൊക്കേ കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരൊക്കേ വരുന്നത് ഇപ്പം ഏത് ജാതിയിൽപ്പെട്ട ആൾക്കാരും അവിടെ വന്നിട്ട് അതെല്ലാം ആഘോഷിക്കാറുണ്ട് വെള്ളൂർക്കാവെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും പൊതുവെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ഉത്സവമാണ്